അതേലൊ ആരായിരുന്നു ആ ഓക്കെ ഒക്കെ ഇന്നലെ എന്നെ വിളിച്ചതല്ലേ വൈകിട്ട് വിളിച്ചതല്ലേ ആണല്ലെ ആ ആ ആ ആത് നമുക്ക് നമ്മുടെ ഇടുക്കി കോഴിക്കോട് അല്ലായിരുന്നോ അ അത് മൂന്നു പേരുടെ സീറ്റ് ബുക്ക് ചെയ്തെ ആ ഓ ഓ ആത് അതിനകത്ത് ക്യാൻസൽ ഒര് ക്യാൻസലേഷൻ വന്നായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു തോന്നുന്നു അല്ലേ വരുമ്പോൾ ക്യാൻസലേഷൻ അപ്പം ആ അത് അ അത് നാലു പേരുടെ ഇത് ഉണ്ടായിരുന്നു അതിലെ ക്യാൻസലായാരുന്നു ആ ചേഞ്ച് ചെയ്യാലോ അതിൽ അത് നിങ്ങളുടെ ആധാർ കാർഡും പിന്നെ ആ പഴയ ഇതൊന്ന് ഒന്നും കൂടെ ഇട്ട് തരാവോ ആ മൂന്ന് പേരല്ലേ ആ ഓ ശരി ശരി അതിനകത്ത് പിന്നെ വേറെ നിങ്ങൾ എത്രെയാണ് പെമെൻറ്റ് ഫുള്ള് ചെയ്തായിരുന്നോ ഫുൾ പേമെൻറ്റ് ചെയ്താലേ അങ്ങനെ മാറ്റാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഫുൾ പേമെൻറ്റ് നടത്തി എൻ്റെ അക്കൗണ്ടിലേക്കാണോ ഇട്ടത് അതോ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ആ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ ഒന്ന് എനിക്ക് വാട്സപ്പിൽ ഇട്ടേക്കാമോ ആ പിന്നെ അതിനകത്ത് വരുന്നത് നിങ്ങളുടെ ആധാർ കാർഡ് എല്ലാവരുടെയും ആധാർ കാർഡ് വേണം കൊച്ചിൻ്റെ വേണ്ട ബാക്കി എല്ലാ ആൾക്കാരുടെയും ആധാർ കാർഡ് വേണം ആ ഓകെ ശരി ആ വി നോക്കാം നോക്കാം വിൻഡോ സീറ്റ് തന്നെ നോക്കാം ഇലില്ല അങ്ങനെ ചിലപ്പോഴേ വരുള്ളൂ ചിലപ്പം ആരും ഉണ്ടാവില്ല ഇനിയിപ്പം ആരും ബുക്കിംങ്ങ്

ആ ശരി ശരി